കോട്ടയം നാഗംപടത്തുള്ള അന്തോണീസ് പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ രാവിലെ അഞ്ചരക്ക് ആരാധന അതു കഴിഞ്ഞു കുറുബാന നൊവേന അതുകഴിഞ്ഞു പിന്നെ പത്തുമണിക്ക് പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്ക് അഞ്ചുമണിക്ക് അത് എട്ടര വരെ പ്രാർത്ഥനയും കുറുബാനയും നോവേനയുമായിട്ടു നടക്കുന്നു അവിടെ പത്ത് രണ്ടായിരത്തിലധികം ആൾക്കാർ ഒയെ എല്ലാ ചൊവ്വാഴ്ച്ചകളിലും പങ്കെടുക്കുന്ന ഒരേ സമയത്ത് പങ്കെടുക്കുന്ന അങ്ങനെ അഞ്ചു സമയത്തായിട്ട് പതിനായിരം പതിനായിരത്തിനു മുകളിൽ ആളുകളാണ് ഒരു ദിവസം പങ്കെടുക്കുന്നത് എല്ലാ ചൊവ്വാഴ്ച്ചകളിലും അതു കൂടാതെ പത്തു ദിവസങ്ങൾ ഇട ദിവസങ്ങളിലും അവിടെ പ്രാർത്ഥനയും നോവേനെയും ഉണ്ട് നേർച്ചയായിട്ട് ബൺ കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ കുടമാളൂർ അൽഫോൻസ ജന്മ ഗ്രഹം ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അൽഫോൻസയുടെ അൽഫോൻസാമ്മ ജനിച്ച വീട് അൽഫോൻസായും അൽഫോൻസാമ്മയുടെ ഖബറടം സ്ഥിതി ചെയ്യുന്നത് ഭരണൻഗാനം ഭരണങ്ങാനത്താണ് ഭരണങ്ങാനത്തും ഒരു അൽഫോൻസ തീർത്ഥാടന കേന്ദ്രമാണ് ശവകുടീരം ഉള്ളത് അതുപോലെ തന്നെ ചാവറയച്ചൻ്റെ അടക്കം ചെയ്തിരിക്കുന്നത് നാന്താനത്താണ് നാന്താനം ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആ പിന്നെ തിരുവാതിക്കൽ വിശുദ്ധ നാവ്വയോഹന്നാൻ്റെ പേരിലുള്ള ഒരു പള്ളിയുണ്ട് അവിടെയും എല്ലാ ശനിയാഴ്ചയും തീർത്ഥാടനം ഉണ്ട് കൂടാതെ അവിടെ നോവേനെയും പ്രാർത്ഥനയും നേർച്ച കഞ്ഞി വിതരണം ഉണ്ട് കുടമാളൂർ അൽഫോൻസാമ്മേ മാമോതിസ്സ മുക്കിയ പള്ളി കുടമാളൂർ പള്ളിയിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയും നേർച്ച കഞ്ഞി വിതരണവും നടക്കുന്നു ചേർത്തുങ്കൽ പള്ളിയിൽ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും വലിയ ജനസ് ജനാവലി പങ്കെടുക്കുന്ന പ്രാർത്ഥനയും നേർച് ഞങ്ങളുടെ നേർച്ചവിതരണവും ഉണ്ട് അതുകൂടാതെ കോട്ടയം നഗരഹൃദയത്തിലുള്ള തിരുനിക്കര അമ്പലത്തിൽ ഉള്ളൊരു പകൽപ്പൂരം ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പകൽപ്പൂരം അത് ഒരു വലിയ ഇരുപത്താറ് ആനകളോളം നെരക്കുന്നൊരു പകൽപ്പൂരമാണ് അവിടെ നടക്കുന്നത് അതിൽ കാൺ കാഴ്ചക്കാരായിട്ടു നിരവധി ആളുകൾ ആ പകൽപ്പൂരം കാണാൻ എത്തുന്നു തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽപ്പിന്നെ ഒരു വലിയൊരു കാഴ്ചയാണ് പകൽപ്പൂരം എന്നുപറയുന്നത്